തയ്യൽ നടത്തിക്കൊണ്ടു പോവാൻ താല്പര്യമുണ്ട് പിന്നെ മറ്റു ഉത്തരവാദത്തോടുകൂടി താല്പര്യത്തോടും ഒപ്പം തന്നെയാണ് ഞങ്ങൾ ഈ മേഖലയും മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത് നെയ്ത്തിനും തുന്നലിനും സമയം കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞങ്ങൾ അത് ഏജൻ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരു തുണി തുന്നുവോ അല്ലെങ്കിൽ രാത്രിക്ക് ഇരുന്ന് തുണി തുന്നുവോ ഒക്കെ ചെയ്യുക അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ എല്ലാ സമയവും നമ്മൾ ഒരുപോലെ ഇരുന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം മാത്രമേ നമ്മൾ കളയാതെ നമ്മൾ ചെയ്യുന്നുണ്ട് അത്ര ചെയ്യാൻ പറ്റും ആ തുണി അത് അടുത്ത് എന്തെങ്കിലും വിദ്യ നമുക്ക് പറയാനായിട്ട് നമുക്ക് അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളടേതായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ തുണി തയ്ക്കുന്നു ഞങ്ങൾ തുന്നുന്ന ഇടത്ത് തുന്നുന്ന ഇടുത്ത് പോയി നോക്കുന്നു അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു അവരുടെ തുണികൾ ചെന്നു മേടിക്കുന്നു പിന്നെ തയ്യൽക്കടയിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും തയ്യൽക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടുള്ള അതിലാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വിചാരിച്ചു കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞങ്ങൾ ഇതിന് തന്നെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിനാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ സംരംഭം വിജയിപ്പിക്കണമെന്നുള്ള താല്പര്യത്തിലൂടെിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ള അങ്ങോട്ടുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് അത്രയ്ക്ക് തന്നെ ഇല്ല ഞങ്ങൾ ഉള്ള കഴിവ് അനുസരിച്ചു ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പം തന്നെ നമ്മൾ ഈ കുട്ടിലൊന്നും ഞങ്ങൾക്ക് അയിതിനെപ്പറ്റി പറയാനായിട്ട് യാതൊന്നും ഇല്ല പിന്നെ ഓരോ വിദ്യയും അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ചാണ് ഞങ്ങൾ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനം അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ കിട്ടുന്ന സമയം നമ്മൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഒരു തുണി തയ്ക്കുകയാണെങ്കിൽ അത്രയും തുണിയുടെ ഇതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടു പോവാലോ എന്നുള്ള ഉത്ത്രവാദിത്തത്തിലൂടെയാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ലതെ വേറെന്നുമല്ല ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ടുള്ള വരുള്ളൂ